ഇപ്പോൾ ജനനസമയത്തുള്ള മൃഗങ്ങളെ നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിൽ പരിപാലിക്കണം കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ടൈമിൽ പാൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കണം പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പട്ടിനെ അതായത് വളർത്തുകയൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് പട്ടിക്കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്തെയ്യാ അതിന് പാലാണ് കൊടുക്കേണ്ടത് നമ്മളെ ഇത് പഷുംപാല് അങ്ങനത്തെ പാലുകളല്ല അതായത് ആ പട്ടിയുടെ അമ്മയേതാണോ അതിന്റെ മുലപ്പാൽ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് അപ്പോൾ അത് കുടിച്ച് വളർന്നാൽ മാത്രമേ നമുക്ക് പട്ടി ഒരു ആരോഗ്യവാനായിട്ടും ആരോഗ്യവതിയായിട്ടൊക്കെ വരൊളൂ അപ്പോൾ അതാണൊരു കുറെ നാൾ ഒരു ഒരു മാസത്തിനും മുകളിൽ നമ്മൾ അതുതന്നെയാണ് കൊടുക്കേണ്ടത് പിന്നെപ്പിന്നെയാണ് മെല്ലെ നമ്മളെന്തെയ്യാ നമ്മൾ ഇപ്പോൾ പശുമ്പാല് കാര്യങ്ങളൊക്കെ കൊടുക്കുക നല്ല രീതിയിലുള്ള ഇന ഇനങ്ങളന്നൊക്കെ പറഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്നത് പോമറേനിയൻ ഇനമുണ്ട് പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞൽ അതായത് അല്ലാത്ത ഡോബർമാൻ അൽസേഷ്യൻ ഇങ്ങനത്തെ മൂന്നിനങ്ങളാണ് എന്റെ കയ്യിലുള്ളത് അപ്പോൾ അതിനെ അൽസേഷ്യനൊക്കെന്നു പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡ് വേണം നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിട്ട് വേണം അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ കൂടുതലായിട്ടും അതിന് ചിലവ് കൂടുതലായിരിക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ